നമുക്ക് അങ്ങനെ ഇതുവരേയിട്ടമക്കങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നുണ്ടായിട്ടില്ല എന്നാല് നമ്മള് കുറേ സ്ഥലമൊക്കെ കേട്ടിട്ടുണ്ട് ഇതേപോലെ പത്രങ്ങളൊക്കെ വായിക്കാറുണ്ട് ഈ ചില ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി വാങ്ങിക്കുമെന്നു നമ്മള് കേക്കന്ന് ഇവിടെ നമ്മള് സിനിമയിലൊക്കെ കാണുന്നതാണിത് അതാണ് അങ്ങനത്തൊക്കെ അതൊരു വലിയ പ്രശ്നമാണ് പിന്നെ ഈ വക്കീലന്മാര് നമ്മളെ കുറേ വട്ടം കറക്കും അതേപോലെ ഈ വക്കീൽമാര് കേസേറ്റെടുത്തതിനുശേഷം ഇതില് ചിലപ്പോള് മറ് കണ്ടം ചാടി അവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലൊക്കെ ചിലപ്പോള് അവര് പ്രവത്തിക്കാറുണ്ട് വെച്ചാല് ഇവലും ഇതേപോലെ കൈക്കൂലിയൊക്കെ വാങ്ങിച്ച് ഇതേപോലെ മറുകണ്ടം ചാടും അതിനു ശേഷം ഇവര് ഓൽക്ക് ഫലപ്രദമായിട്ടുള്ള രീതിയില് കേസിനെ വഴിതിരിച്ച് വിടാറൊക്കെയുണ്ട് അതെപോലെ പോലീസുകാര് കാരണം നമ്മൾ ട്രാഫിക്കില് കുറേ ഫൈന് കൊടുക്കേണ്ട അവസരം കുറേ ഉണ്ടായിട്ടുണ്ട് എനിക്കുതന്നെ കുറേ വട്ടം ഫൈനിട്ടിന് ഹെൽമെറ്റിടാത്തേനും അതേപോലെ കാറില് പോകുമ്പോല് സീറ്റ് ബെൽറ്റിടാത്തേയ്നൊക്കെ നമ്മള് കുറേ പെട്ടതാണ് പഞ്ചായത്തില്നിന്നു പിന്നെ കുറേ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ട്ന്ന് കേട്ടിട്ടുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ അപേക്ഷിക്കുമ്പോള് നമുക്ക് അത് പെട്ടെന്ന് ശരിയാക്കിത്തരാത്തവര് ഡിലെ ആക്കി ഡിലെ ആക്കി കൊണ്ടുപോകാറുണ്ട് അതൊരു വലിയ പ്രശ്നമായിട്ട് ഞങ്ങക്കനുഭവപ്പെട്ടിട്ടുണ്ട്